ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ടെച്ച് ഫോണിന്റെ ഒരു അവതരണവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ആ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ടെച്ച് ഫോണൊക്കെ ഉത്ഭവിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അതായത് നമ്മുടെ സാംസങ് ചാംപ് അത് അതു തൊട്ടാണ് നമ്മള് ടച്ച് ഫോണും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാദാ കട്ടപെട്ടിയും കാര്യങ്ങളൊക്കെ ആരുന്നു അപ്പോൾ അതിന് നെറ്റും കാര്യങ്ങളൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറവായിരുന്നു കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇപ്പോൾ ഒരു ഇരുനൂറ് എം ബി നൂറ് എം ബി അങ്ങനക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെ ഇരുപത്തഞ്ചും മുപ്പതും നാപ്പതും അമ്പതും അങ്ങനെ പൈസ ഒരു കാർഡ് രൂപത്തിലായിരുന്നു വന്നോണ്ടിരുന്നത് നമ്മള് ചുരണ്ടി കഴിഞ്ഞാല് അതിന് റീചാർജിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മളടിച്ചിട്ട് റീചാർജ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആരുന്നു അന്നുണ്ടാരുന്നത് അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പരിപൂർണ ആയിട്ട് മാറിയിരിക്കുക ആണ് കാരണം അങ്ങനത്തെ ഒരു കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പം നമ്മുടെ നമ്മുടെ കൈ ഇതിലില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം അതൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് വൺ ഒന്നര ജീ ബി നെറ്റും നമുക്ക് ഒരു മാസം ഇരുപത്തെട്ട് ദിവസത്തേക്കൊക്കെ കോളും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വിളിക്കാനും പറ്റും അന്ന് ഇതൊന്നും പറ്റില്ല അന്ന് നമ്മള് ഇരുപത് രൂപയ്ക്കു റീചാർജ് ചെയ്യുന്നേൽ കോള് മാത്രം പറ്റും ഇല്ലെങ്കില് ഇരുപത്തിയഞ്ച് രൂപക്ക് റീചാർജ് ചെയ്തുകഴിഞ്ഞാൽ നെറ്റ് മാത്രം ചെയ്യാം അങ്ങനെ പല രീതീയിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം പരിപൂർണമായിട്ട് മാറി നമുക്ക് നെറ്റ് കണക്ഷൻ ഒക്കെ ഇപ്പോൾ ഫൈജി ആയി തുടങ്ങി ഇപ്പോൾ ഫോർജിന്നു മാറി ഫൈജി ആയി ഇപ്പോൾ നമുക്ക് ഓരോ സിനിമ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ സിനിമയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൌൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുകയും ചെയ്യും